രാഷ്ട്രീയത്തിൻ്റെ ഭരണകൂടത്തെയും ആ ക്ഷേമത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നത് കാരണം ഇത് ക്ഷേമമാണല്ലോ നമ്മൾ ശരിക്ക് താൽപ്പര്യപ്പെടുന്നത് ആ സമകാലിക വാർത്തകളിൽ ഞാനൊരുപാട് ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് കാണുന്ന വാർത്തകൾ ശരിക്കും മനസ്സിനൊരുപാട് ഭാരപ്പെടുത്തുന്ന രീതിയിലാണ് കാരണം സമൂഹം ശരിക്കും തിന്മയിലേക്കല്ലേ ലഹരിയുടെ അടിമത്തത്തിലേക്ക് ചെറിയ കുട്ടികൾ തൊട്ട് വയലൻസിലേക്കൊക്കെ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് മനസ്സിനെ ശരിക്ക് ഭാരപ്പെടുത്തുന്നുണ്ട് അതുപോലെതന്നെ പിന്നെ ആ എത്ര മാത്രം എന്നാ സമൂഹത്തെ കൺട്രോള് ചെയ്യാൻ നോക്കിയാലും അതിൻ്റെയൊരു പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം മുന്നോട്ടു പോവുന്നത് കാരണം കൊച്ചു കുട്ടികളുടെ ഇടയിൽ വരെ ലഹരി വസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് സ്വാധീനം ചെലുത്തുമ്പോൾ നമ്മൾ പത്ര വാർത്തകളൊക്കെ ആകുമോ എന്നാൽ പേപ്പറ് തുറക്കുമ്പോൾത്തന്നെ മനസ്സൊരുപാട് ബുദ്ധിമുട്ടുന്ന രീതിയിൽ കാഴ്ച്ചകൾ അതുകൊണ്ടുതന്നെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പത്രങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് സമൂഹം വളരുന്നുണ്ട് രാഷ്ട്രീയം വളരുന്നുണ്ട് പക്ഷേ ആ രാഷ്ട്രീയം മുന്നോട്ട് പോവുന്നുണ്ട് അതിൻ്റെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഒരുപാട് കാര്യങ്ങൾ എന്നാ നെഗറ്റീവായിട്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴുമെല്ലാം മനസ്സ് ഭാരപ്പെടുന്നതുകൊണ്ട് തന്നെ ഇന്ന് സമൂഹം ഒരു നല്ലൊരു കണ്ടീഷനിലാണെന്ന് എനിക്കിന്ന് പറയാനായിട്ട് സാധിക്കില്ല അതുപോലെതന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ശ്രദ്ധ വെച്ചു നോക്കുമ്പോൾ എത്ര മാത്രം സമൂഹം ഇനിയും മാറി ചിന്തിക്കാനുണ്ടെന്നും എത്ര മാത്രം വേറിട്ട ഒരു ചിന്തയിലേക്ക് കടന്നു വരാനുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടറിയാനുണ്ട് എത്ര മാത്രം എന്നാ രാഷ്ട്രീയം മുന്നോട്ട് എത്ര മാത്രം രാഷ്ട്രീയ മേഖലകൾ എന്തൊരുമാത്രം മുന്നോട്ട് വളരാനുണ്ടെന്നും അതുപോലെതന്നെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ചില വ്യക്തികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രവർത്തനം എത്രമാത്രം സമുചിതമായിരിക്കണം എന്നുമൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം